ആരോഗ്യ സംരക്ഷണം സാമൂഹിക പിന്തുണ അന്തസ്സ് എന്നിവയുടെ കാര്യത്തിൽ വയനാട് ജില്ലയിലെ വയോജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ആ അതായത് വെല്ലുവിളികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിലിപ്പം വയോജനം അതായത് വയോജനങ്ങൾക്ക് ഒക്കെ അതായത് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അവർക്കെല്ലാം ഫ്രീയാണ് ഫുഡ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് കിട്ടും ഹോസ്പിറ്റലിൽ തന്നെ നിന്ന് കിട്ടും നമുക്ക് അതൊക്കെ പിന്നേ എന്താ എന്ന് പറയാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് ചിലവരൊക്കെ കിടപ്പ് രോഗികൾ ആയിരിക്കും ചിലപ്പോൾ വീട്ടിലത് അതായത് മക്കൾ ഒന്നും നോക്കാണ്ട് കിടക്കുന്ന രോഗികൾ ആയിരിക്കും അപ്പം എന്താ പ്രശ്നം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയ്യാതാകുമ്പോൾ ചിലപ്പോൾ അവരെ കൊണ്ട് അതായത് വീട്ടുകാർ കൊണ്ട് പോകാത്ത ഒരു അവസ്ഥ വരും അപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് പോകാത്ത ഒരു അവസ്ഥ വരും അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആണ് അവർക്ക് പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതായത് ഹോസ്പിറ്റലിൽ പോകാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ അവർ മരണം അടയാൻ ഉള്ള സാധ്യത ഒക്കെ ഉണ്ട് പിന്നെ ചിലർക്ക് ഒന്നും ഹോസ്പിറ്റൽ അതായത് ആവൂല ഒറ്റക്ക് ഹോസ്പിറ്റലിൽ വണ്ടി പിടിച്ച് പോകാൻ ഉള്ള ഒരു ഇത് ഒന്നും ഉണ്ടാകൂലാ പിന്നെ ചിലർക്ക് സാമ്പത്തികമായിട്ട് മക്കൾ ഒന്നും പൈസ കൊടുക്കാത്ത ഒരു അവസ്ഥയുണ്ടാകും ചിലർക്ക് പൈസ ഇല്ലാത്തൊരവസ്ഥയുണ്ടാവും അങ്ങനെ ഒക്കെ ഉള്ള അവസ്ഥ ആകുമ്പോൾ ചിലപ്പോൾ കിടപ്പ് രോഗികൾക്കും വയോജനങ്ങൾക്ക് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും